വാര്ത്തകള് ശ്രദ്ധിക്കാന് ഞങ്ങള് തലമുറ യുവതലമുറയെ പ്രോത്സാ പ്രോത്സാഹിപ്പി പ്പിക്കാറുണ്ട് കാരണം വാര്ത്തകള് ശ്രദ്ധിക്കുന്നതു കൊണ്ട് പ്രയോജനങ്ങളേറെയാണ് വാര്ത്ത വാര്ത്തകള് പല ചാനലൊരു ചാനല് വഴിയായും ടി വി ചാനല് വഴിയായും പത്രം പത്ര വഴിയായിട്ടും വരുന്നുണ്ട് വര്ക്കുകള് അപ്പം പല പത്രങ്ങളായ പത്രങ്ങളിൽ കൂടെയും നമുക്ക് പല വാര്ത്തകള് വരുന്നുണ്ട് ഡെയിലി പത്രം വായന അതൊരു നല്ല ശീലമാണ് ഞാന് കുഞ്ഞുന്നാള് മുതലേ എനിക്ക് പത്രം കുഞ്ഞുന്നാള് മുതലേ പത്രം എല്ലാ ദിവസവും വായിക്കാറുണ്ട് അതിൽ മേയുമ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ അതിൽ ഒരു പതാ ചില പത്രങ്ങളിലും മാക്സിമം അട്വെര്ട്ടൈസ്മെന്റ് മാത്രമേ പരസ്യം മാത്രമേ കാണാറുള്ളു പിന്നെ ഇടയ്ക്ക് ഒരിടയ്ക്ക് ഒന്ന് രണ്ട് ഫസ്റ്റ് പേജും ഇമ്പോർട്ടന്റ് പ്രധാനവാര്ത്തകള് കാണാറുണ്ട് അതു പോലെ ഈ ചില നമുക്ക് അറിയാന് പറ്റാത്ത അറിയാത്ത കാര്യങ്ങള് അതായത് പല ഇത് പല സ്ഥലങ്ങളിലും നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനെ ഭാവിയില് നമ്മുടെ കുട്ടികള്ക്കു പറഞ്ഞു കൊടുക്കാനും നമുക്ക് അത് പ്രചോദനമാകുന്നു പത്രം പത്രം വായ പത്രവും വായും വായിക്കുന്നതു കൊണ്ടും ടി വി ചാനല് ടി വി ചാനലിൽ വാര്ത്തകള് കാണുന്നത് കൊണ്ടും നമുക്ക് നല്ല നല്ല ഗുണമേ ഉണ്ടാകാറുള്ളു അതില് നല്ല പ്രയോജനങ്ങളും നമുക്ക് ഉണ്ട്